അതേ സുഹൃത്തുക്കളുടെയും മറ്റു റൈഡേഴ്സിൻ്റെയും കൂടെ ബൈക്കിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ നേരത്ത് ദൂരെ ദൂരെയായിട്ടുള്ള ദൂരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞങ്ങൾ റൂട്ട് തീരുമാനിക്കാറ് അപ്രതീക്ഷത സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ കാലാവസ്ഥ എന്താണ് പ്രയോജനവും പരിശോധിക്കാറുണ്ട് ബ്രേക്കുകൾ ടയറുകൾ ചെയിൻ എന്നിവ പരിശോധിച്ച് ബൈക്ക് നല്ല നിലയിലാണെന്ന് ഉറപ്പാക്കിയിട്ടാണ് പോകാറ് വെള്ളം അതു പോലെ തന്നെ ലഘു ഭക്ഷണങ്ങൾ അടിസ്ഥാന റിപ്പയർ കിറ്റുകൾ ഹെൽമറ്റ് ഗ്ലൗസ് പോലെയുള്ള സുരക്ഷാ ഗിയർ തുടങ്ങിയ അവശ്യസാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യുന്നു തിരക്കുള്ള ഷെഡ്യൂളിൽ സമയം മാനേജ് ചെയ്യാൻ ഞാൻ സാധാരണയായി അവധി ദിവസങ്ങളിലോ സവാരി ആ ആസൂത്രണം ചെയ്യുകയും എല്ലാവർക്കുമുള്ള പ്രതിബദ്ധതകൾ ക്രമീകരിക്കാൻ എൻ്റെ സുഹൃത്തുക്കളെ മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യും ചിലപ്പോൾ മറ്റ് ആസ ആസൂത്രിത പ്രവർത്തനങ്ങളുമായി ഞാൻ സവാരി കൂട്ടി ചേർക്കുകയോ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ ബാക്കി ജോലികളിൽ ഇടപെടാതിരിക്കുകയോ അതി രാവിലെ ആരംഭിക്കുകയോ ചെയ്യും